ഞാന് വാങ്ങിയ പ്രോഡക്റ്റ് ഹെഡ് സെറ്റ് ഹെഡ് സെറ്റിന് തീരെ സൗണ്ട് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ഞാനൊരു ചാർജ്ജ് ചെയ്യുന്ന ഹെഡ് സെറ്റ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്

ഒരു പാട്ടൊക്കെ കേൾക്കവച്ചാ കറക്റ്റ ഒരു ഒരിതില്ല ഒരു കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ കിട്ടുന്നില്ല കോള് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റണില്ല ഒരു സൗണ്ടൊക്കെ ഒരു പതറിയ സൗണ്ടാണ് വരണത് തീരെ ക്ലാരിറ്റി ഇല്ല ചാർജ്ജ് തീരെ കേറണില്ല ചാർജ്ജ് ആണ് ഏറ്റവും വലിയ പ്രശ്നം ചാർജ്ജ് തീരെ കേറുന്നില്ല ചാർജ്ജ് കേറുന്ന ചാർജ്ജറും ഒരു കറക്റ്റ് വർക്ക് ചെയ്യാത്ത ഒരു ചാർജ്ജർ പോലെയുണ്ട്